ഹലോ ഹോട്ടൽ അറഫ അല്ലേ ഞാൻ മങ്ങാട്ടുകരയിൽ നിന്ന് വന്ദനയാണേ വിളിക്കുന്നത് കുറച്ചുമുമ്പ് ഞാനൊരു ചപ്പാത്തിക്ക് ഒരു ചപ്പാത്തിക്കും രണ്ട് നാനും ഓർഡർ ചെയ്തിരുന്നു ഒരു പത്തുമണിയൊക്കെ ആയപ്പം അതിപ്പം എന്നുവെച്ചാൽ നമുക്ക് പെട്ടെന്നൊരു ഗസ്റ്റും കൂടെ വന്നിട്ടുണ്ട് അപ്പം അതൊന്ന് ഇപ്പം ഓർഡർ ചെയ്ത നമ്മുടെ പാക്ക് ചെയ്തിട്ടില്ലല്ലോ അല്ലേ ആ അപ്പം അതൊന്ന് ഞങ്ങൾക്കൊന്ന് എനിക്കൊന്ന് കൂട്ടാനായിരുന്നു അതിൻ്റെ ക്വാണ്ടിറ്റി ഒന്ന് കൂട്ടാനായിരുന്നേ ആ ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഒരു ചപ്പാത്തി രണ്ട് നാൻ ആയിരുന്നു ഞാൻ ഓൾറെഡി കൊടുത്തിരുന്നത് അപ്പം എനിക്കതൊരു മൂന്ന് ചപ്പാത്തി അഞ്ച് നാനായിട്ട് ഒന്ന് ഇതാക്കാനായിരുന്നു ക്വാണ്ടിറ്റി കൂട്ടാനായിരുന്നു അങ്ങനെ ചേർക്കാൻ പറ്റില്ലേ കുഴപ്പമില്ലല്ലോ അല്ല അതിന് ഞാൻ പേ പേമെൻറ് ക്യാഷ് ഓൺ ഡെലിവറി ചെയ്തോളാം കാരണം ഞാനത് ഓൺലൈൻ അല്ല ചെയ്തത് അപ്പം പിന്നെ അതിന് എത്രയാണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പം ഈ ഞാൻ ആ ഫസ്റ്റ് ഓർഡർ ചെയ്തതും പിന്നെ ഇതിൻറേയും കൂടിയിട്ട് ഒരുമിച്ച് എത്രയാണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ ഡെലിവറി ചെയ്യാൻ വരുന്ന ആൾക്ക് ഞാൻ പേമെൻറ് ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ട് അപ്പം തന്നെ കൊടുത്തേക്കാം ഇപ്പം തന്നെ വരുമോ നാലെണ്ണം എന്നാണ് ഞാൻ ഇവിടെത്തന്നെയാണ് നമ്മുടെ ഞാൻ കൊടുത്ത അതേ അഡ്രസ്സ് തന്നെ എനിക്ക് ഇതുമാത്രം കൂട്ടിയാൽ മതി ക്വാണ്ടിറ്റി മാത്രം അതായത് ചപ്പാത്തി ഒരെണ്ണം എന്നുള്ളതും രണ്ട് നാൻ എന്നുള്ളതും എനിക്ക് മൂന്ന് ചപ്പാത്തി അഞ്ച് നാനും കൂടെ വേണം അത്രേയുളളൂ അതൊന്ന് ക്വാണ്ടിറ്റി മാത്രം കൂട്ടിയാൽ മതി ഓർഡർ അതുതന്നെ അഡ്രസ്സും അത് തന്നെ പേമെൻറ് ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചുകഴിഞ്ഞാൽ ആരാണോ വരുന്നത് ഡെലിവറി ബോയുടെ അടുത്ത് ഞാൻ ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ട് കൊടുത്തേക്കാം ഓക്കെ ഓക്കെ താങ്ക് യൂ കേട്ടോ